ആ ഫ്രഷ് വെജിറ്റബിൾസൊക്കെ ഉണ്ടോ ഒരു കുറച്ച് ക്വാണ്ടിറ്റി വേണമായിരുന്നു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു ആ ആ നൂറ് പേർക്കുള്ളത് ആ അപ്പം ആ സാമ്പാർ അവിയൽ എല്ലാം ഉണ്ട് വെജിറ്റബിൾ സദ്യയാണ് വരുന്നത് ആ അപ്പോൾ ആ ഇപ്പം എന്നാൽ അവൈലബിൾ ആണോ ആ നാളത്തേക്കായിരുന്നു വേണ്ടത്

ആ ഓക്കെ അപ്പം എമൗണ്ട് ഒക്കെ എന്തിന് എങ്ങനെയൊക്കെയാണ് വരുന്നത് ഓഫർ ഉണ്ടോ വല്ലതും ആ ഓക്കെ ആ ഓക്കെ ഓ എല്ലാം ഒരു എറൗണ്ട് ഒരു ഫൈവ് കെ ജി എങ്കിലും വേണ്ടി വരും ഫൈവ് കെ ജിക്ക് മേലെ വേണ്ടി വരും ആ ആ ഓക്കെ എന്തായാലും കുഴപ്പം ഇല്ല

വേണ്ട വേണ്ട വന്ന് കളക്ട് ചെയ്തുകൊള്ളും ആ ആ വന്ന് അവർ സെലക്ട് ചെയ്തുകൊള്ളുമെന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് വേണ്ടിയിട്ടല്ല കസിന് വേണ്ടിയിട്ടാണ്

ആ ഉണ്ട് ഉണ്ട്

ആ എത്ര ഇപ്പം അഡ്വാൻസ് വേണ്ടി വരിക ആ ഓക്കെ ഗൂഗിൾ പേ നമ്പറാണോ ആ ഓക്കെ

ആ ഓക്കെ വാട്ട്സ്ആപ്പ് ചെയ്യാം ആ ആ അപ്പം ഇല്ലാത്തതാണെങ്കിൽ ആ ഓക്കെ വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ അവിടെ

ആ എന്നാൽ ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്യാം ആ ഓക്കെ